അപ്പോൾ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ പല തരത്തിലല്ലെങ്കിൽ പലതരം ടാലന്റ്കളുള്ള കുട്ടികളെയാണ് നമുക്ക് നമ്മൾ കണ്ട് വരുന്നത് ഓരോരുത്തര്ക്കും ഓരോ വ്യത്യസ്ത കഴിവുകളാണ് ഉള്ളത് ഓരോ ഓരോ കുട്ടികളും പല ജീവിത സാഹചര്യങ്ങളില് വരുന്നവർ ആയത് കൊണ്ടും പലരും പല രീതീലുള്ള അല്ലെങ്കില് പല പലതരം കഴിവുകള് ഇപ്പോൾ പഠനം മാത്രമല്ല എക്സ്ട്രാ ആക്റ്റിവിറ്റീസാണെങ്കിലും അല്ല അവര്ക്ക് എന്തെങ്കിലും സ്പോര്ട്സ്പരമായിട്ടാണെങ്കിലും എന്ത് തരത്തിലാണേലും പലതരം കഴിവുകള് ഉള്ള കുട്ടികളാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ സ്കൂളുകളില് പല സ്കൂളുകളില് എല്ലാവരും ഈ കുട്ടികളൊക്കെ ഇതുപോലെ പലതരത്തില് പലതരത്തിലും യൂസ് ചെയ്യുന്നുണ്ട് അതായതിപ്പം നമുക്ക് നമുക്ക് വന്നിട്ട് ഒരോരുത്തരും പഠിക്കുന്നത് പല തരത്തിലായിരിക്കും അല്ലെങ്കിൽ പഠിച്ചും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് പല തരത്തിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്ട്രാ കരിക്കുലം ആക്റ്റിവിറ്റീസ് അല്ലെങ്കിൽ അവർ സ്പോര്ട്സിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവർ സ്പോര്ട്സ്പരമായിട്ട് ചെയ്യുന്നത് ഇതെല്ലാം പല രീതീലാണപ്പം സ്കൂളുകാര് സ്കൂളിലുള്ളവർ ഈ കുട്ടികളെ പല കഴിവുള്ള കുട്ടികളെയും സ്കൂളുകാരത് പല തരത്തിലും പ്രയോജനപ്പെടുത്താനും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അവരുടെ സ്കൂളിലെ ഇപ്പോൾ ഒരു സ്കൂളിത്തന്നെ ഒരു കുട്ടി അല്ലെങ്കിൽ പല കുട്ടികൾ പല തരത്തില് ടാലന്റെടായിട്ടുള്ള കുട്ടികളെ അവർ പല ഗ്രൂപ്പ്കളിലേയ്ക്കും അല്ലെങ്കിൽ പല കരിക്കുലാർ ആക്റ്റിവിറ്റീസിലും ഒക്കെ സ്കൂളിനെ പ്രതിനിധാനം ചെയ്ത് കൊണ്ടാണ് അവരെ വളര്ത്തിക്കൊണ്ട് വരുന്നതും അപ്പം സ്കൂളുകാരും പല തരത്തിലും സപ്പോര്ട്ടുകൾ കൊടുത്തു കൊണ്ടാണ് ഈ കുട്ടികളെ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ അവർ പുതിയ പുതിയ കഴിവുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അവര്ക്കുള്ള കഴിവുകളെ കുറച്ചൂടെ മെച്ചപ്പെടുത്തി കൊണ്ട് വരുന്നതിന് വേണ്ടീട്ടും ഒക്കെ സ്കൂളുകാരും ശ്രമിക്കുന്നുണ്ട് സ്കൂളുകാര്ക്ക് എങ്ങനെയുള്ക്കൊള്ളാന് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്കൂളുകാര്ക്കത് നല്ല രീതീല്ത്തന്നെ അവർ ഒരു ബെനിഫിറ്റായിട്ട് തന്നെയാണവർ കണക്കാക്കുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയിപ്പോൾ സ്കൂളിൽ അവരുടെ സ്കൂളിൽ ഏത് സ്കൂളിലാണോ ആ സ്കൂളിൽ നല്ല ടാലന്റടായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ടാലന്റടായിട്ടുള്ള കുട്ടികളുണ്ടെങ്കില് ഒന്നുണ്ടെങ്കില് സ്കൂളിനത് വളരെയധികം നല്ലത് മാത്രമായിരിക്കുമല്ലോ